അപ്പോൾ ഇന്ത്യയില് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു കേരളത്തില് ആരോഗ്യ മേഖലാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതീയില് മുന്നിട്ട് നിൽക്കുന്ന ആരോഗ്യമേഖലയാണ് ഇപ്പ ഇന്ത്യയില് പല സംസ്ഥാനങ്ങളിലും ചെല സ്ഥലങ്ങളിലൊക്കെ നമ്മളിപ്പം എന്തെങ്കിലും അസുഖങ്ങളൊക്കെയായിട്ട് ചെന്ന് കഴിഞ്ഞാല് അവര് അഡ്മിറ്റാക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അവള് നമ്മളെ മര്യാദയ്ക്ക് നോക്കുകയും കൂടിയില്ല അവരൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയായിട്ട് അവിടെ നിൽക്കും നമ്മള് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമ്മളെന്തോ വലിഞ്ഞുകേറി വരുന്നൊരാളെ പോലൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് പക്ഷെ നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എല്ലാവരേയും നല്ല രീതിയില് ചികിത്സിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ഉള്ള എല്ലാം ഹൈടെക് ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ നമ്മടെ കോ കോഴിക്കോടല്ല മൊത്തത്തില് കേരളത്തില് മൊത്തത്തില് നല്ല രീതിയില് നോക്കുന്നുണ്ട് അപ്പ നല്ല രീതിയിലുള്ള ഗുണനിലവാരവും കാര്യങ്ങളൊക്കെ നമ്മള് കേരളത്തിലാണ് കുറച്ചും കൂടെ നല്ലതെന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയുള്ള അതായതിപ്പം ഒരു ബാക്കിയുള്ള സംസ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പല രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ആൾക്കാർക്ക് ശുചിത്വമില്ലായ്മ അസുഖങ്ങള് കാര്യങ്ങള് പെട്ടെന്ന് മരണപ്പെടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുപ്പത് ശതമാനത്തിന് മേളില് എന്താ പറയുക ഇപ്പം പൈസ ചെലവാക്കി ചെലവഴിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആണ് കൂടുതലായിട്ടും അവർക്ക് പൈസയാണ് അവർക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം